ഞങ്ങൾ മലയാളികൾ പലതര രീതികളിലൂടെ ഞങ്ങളുടെ ലാംഗ് ഞങ്ങളുടെ ഈ ഭാഷ ഞങ്ങളുടെ ട്രഡീഷൻസ് കസ്റ്റംസിലുപയോയിക്കാറുണ്ട് ഒന്നാമത് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം സെലിബ്രേഷൻ ഓണം ഈ ഓണത്തിന് ഞങ്ങള് ഇപ്പം ഞങ്ങൾ ഓണപ്പാട്ടുകൾ ഒര് ഒര് വലിയൊരു ഐറ്റമാണ് ഈ ഐറ്റത്തിന് ഞങ്ങള് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ മലയാളം തന്നെയാണ് അതല്ലാതെ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഫക്ട് വരുന്നത് ലിട്രേച്ചറും പോയംസും ഒക്കെയാണ് ഈ കഥ കഥ എഴുത്തും പിന്നെ അത്പോലൊക്കെ സംഭവങ്ങള് ഞങ്ങള് മലയാളം ഉപയോഗിച്ച് അതൊര് വലിയൊരു കസ്റ്റമാണ് അതല്ലാതെ ഇനി അതല്ല പിന്നെ ഞങ്ങള് പിന്നെ കഥകളിയും അതുപോലെ ഡാൻസ് അതുപോലത്തെ ആർട്ട് ഫോംസൊക്കെ ഞങ്ങള് ഈ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യുന്നു ഒരു വലിയൊരു ആ ആർട്ട്ഫോർം തന്നെയാണ്